എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പഴയകാലം നമ്മള് ഉപയോഗിക്കുന്ന പേപ്പറും പേനയും അപ്പോൾ അത് തീരുമ്പോൾ നമുക്ക് ഒരു നമുക്ക് ഒരു ആസ്വാദനം കിട്ടും അത് നമുക്ക് വളരെ ആസ്വദിച്ച് കൊണ്ട് എഴുതാനും ഒക്കെ സാധിക്കും പക്ഷെ ഇപ്പോൾ ലാപ്ടോപ്പുകളും മൊബൈലുകളും ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ണിനും കാഴ്ച ശക്തിക്കും സ്ക്രീൻ ടൈം കൂടുമ്പോൾ വളരെ മോശം രീതിയിൽ പ്രതികൂലിക്കും അത് അത് അതിനോട് കൂടി എനിക്ക് പഴ്സണലി മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യാൻ ഇഷ്ട്ടപ്പെടുന്ന ഒരാളല്ല അതായത് കൊണ്ട് പേപ്പറും പേനയും ഉപയോഗിച്ച് കൊണ്ട് എഴുതുവാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം